ആളുകൾ പട്ടണത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതിനു കാരണം എന്ന് പറഞ്ഞാല് ഈ ഗ്രാമപ്രദേശത്തേ അപേക്ഷിച്ചു പട്ടണങ്ങളിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിരിക്കും എന്നത് എന്നതാണ് പ്രധാന കാരണം എന്നുപറഞ്ഞത് ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വഭാവത്തെ അനുസരിച്ചു നമുക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നതാണ് സത്യം കിട്ടാൻ പ്രയാസം ഒന്നും ഇല്ല ശ്രമിച്ചാൽ ആരെയും കിട്ടും ശ്രമിച്ചാൽ മതി പിന്നെ എന്ന് ഗ്രാമ പ്രദേശത്തെ അപേക്ഷിച്ചു അടിസ്ഥാന സൗകര്യങ്ങളും കാണാം അത്യാവശ്യ സാധാ കാര്യങ്ങളും പെട്ടെന്ന് ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും എന്തുകൊണ്ടും ഏറ്റവും കൂടുതലുണ്ടാവുക ഈ നഗര പ്രദേശങ്ങള് പട്ടണ പ്രദേശങ്ങളിലാണ് അതുകൊണ്ട് ഗ്രാമപ്രദേശത്തെ അപേക്ഷിച്ചു കൂടുതൽ യുവ തലമുറ എല്ലാം കൂടുതലും പട്ടണ പ്രദേശങ്ങളിലേക്ക് പോകാൻ കാരണം ഇതാണ് കാരണം അവിടത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ജീവിത നിലവാരത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പട്ട ഗ്രാമത്തെ അപേക്ഷിച്ചു പട്ടണത്തിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് യുവ തലമുറകൾ അങ്ങോട്ട് പോകുന്നതും അവിടെ ആകുമ്പോൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്താനും സാധിക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരെയും തിരഞ്ഞെടുക്കാം